ഞാന് വളരെ പ്രൈമറി വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ആ ഒരു സമയത്ത് സ്കൂളില് നടന്നിരുന്ന അതായത് നമ്മുടെ വിദ്യുച്ഛക്തി വിഭാഗത്തിന്റെ ഒരു വാര്ഷികമായിട്ട് ബന്ധപ്പെട്ട് നമ്മടെ സ്കൂളിലൊരു ചിത്രരചനാ മത്സരം നടത്തുകയുണ്ടായി നമ്മുടെ വൈദ്യുതി എങ്ങനെയൊക്കെ നമ്മള്ക്ക് ഊര്ജ്ജം നമുക്ക് സേവെയ്യാമ്പറ്റും എന്നുള്ളതായിരുന്നു അതിന്റെ വിഷയം അങ്ങനെ ഒരു ചിത്രം രചനാ മത്സരം ഉണ്ടായിരുന്നു അതിന് ഞാന് പങ്കെടുത്തു അതിന് ഞാന് വരച്ച ചിത്രം എനിക്ക് ആ സമയത്ത് എന്റെ മനസ്സില് അതിനെപ്പറ്റി ഒരുപാട് ചിന്തകര് പോരുന്നില്ല അപ്പോള് ഞാന് വരച്ച ചിത്രം ഇന്നാലോചിക്കുമ്പോള് അത് വളരെ മോശപ്പെട്ട ഒരു ചിത്രം തന്നെയായിരുന്നു ഇത് എന്നത് എന്റെ ചിത്രത്തിനേക്കാളിലും വളരെ മികച്ച രീതിയില് നല്ല ആശയങ്ങള് പങ്കുവച്ച മറ്റു ചിത്രങ്ങളുണ്ടായിരുന്നു വളരെ നന്നായി വരയ്ക്കുകയും വളരെ നന്നായി അതിന് നിറങ്ങള് കൊടുക്കുകയും ചെയ്ത നല്ല ചിത്രങ്ങളുണ്ടായിരുന്നു ആ ചിത്രത്തിന് ഒന്നും രണ്ടും സ്ഥാനങ്ങളൊക്കെ ലഭിക്കുകയുണ്ടായി എന്നാലും ഞാനന്ന് പങ്കെടുത്തത് എന്റെ രീതിയിലൊരു വളരെ വലിയ കാര്യമായിട്ട് ഞാനിന്നും കണക്കാക്കുന്നു ഞാന് എലമെന്റെറി ഇന്റെര്മീഡിയറ്റ് ചിത്ര രചനാ പരീക്ഷകളെഴുതീട്ടുണ്ടോയെന്ന് ചോദിച്ചാല് ഇല്ല ഞാന് വളരെ അമച്വറായിട്ടുള്ള ഇപ്പോഴും വരയ്ക്കാന് പഠിക്കുന്ന സ്വന്തമായിട്ട് ചിന്തകളില് നിന്നും വര ഉള്ള വര കൈകളിലേക്കെത്തിപ്പെടാത്ത എന്നാല് ചിത്രം വരയ്ക്കാനിഷ്ടപ്പെടുന്ന പല പല ചിത്രങ്ങളും നോക്കി വരയ്ക്കുന്ന ഒരു ചിത്രകാരിയെന്ന് പറയാനാണെനിക്കിഷ്ടം